ഞാൻ ബൈക്കിന് പോകുന്ന സമയത്ത് ഇതേപോലെ ചൊ ചെറിയ റൈഡ്സിന് ഇതേപോലെ ഞങ്ങള് പോകുന്ന സ്ഥങ്ങളില് ഇതേപോലെ ടയറ് പഞ്ചറാവുന്ന കാര്യങ്ങള് മെക്കാനിക്കായുള്ള കാര്യങ്ങള് ചെറിയീതി നംക്ക് ചെയ്യാൻ പറ്റും ഈ സ്പാനറും കാര്യങ്ങളൊക്ക ഉപയോയ്ച് കാര്യങ്ങള് ചേർതായിട്ടൊക്കെ നാംകന്നെ ചെയ്യാനുള്ള ഇപ്പ എനിക്കു ഞൊലെതൊട്ട് സൈക്കിളുള്ളോണ്ട് ഇങ്ങനെ സൈക്കിളില് പഞ്ചറ് ഒട്ടി അങ്ങന അറിയാം അപ്പ ബൈക്കങ്ങനെ പ്രശ്നോല്ല പിന്നെ ഈ ചെയിൻ മുറുക്കുന്ന കാര്യം ചെയിൻ ലൂബിയുന്നത് ലൂബിങ്ങിൻ്റെ പിന്നെ ഡിസ്ക്ക് അലൈവീചെയ്യുന്നത് ഇതേപോലെ ഹാൻഡിൽ അലൈമെന്റ് പിന്നെ ചെറിയ അല്ലറ ചില്ലറായിട്ട് ചെറിയ പണികളല്ല എനിക്ക് തനെ പോകുന്ന റൈഡനെ ചെയ്യാൻ അറി അറിയാം പിന്നെ എല്ലാരും അറിഞ്ഞിരിക്കണം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഒരു യാത്ര പോകുന്ന സമയത്ത്തെല്ലാം നമുക്ക് അത്യാവശ്യമാണ് കാരണം തേപോലെ ഒരു സ്ഥലങ്ങളി പെട്ട് പോയി കഴിഞ്ഞാ ഒരു വർഷോപ്പ് പോലു ഇല്ലാത്ത സ്ഥലങ്ങളൊണ്ട് നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കൊറച്ച് ഹില്ലി ഏരിയാസ് പോയി കഴിഞ്ഞാ അവിടെ അതികം ഒരു വർഷപ്പൊക്ക കിലോമീറ്ററ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പം നമ്മള് ഇതെല്ലാ അറിഞ്ഞിരിക്കണ ഇല്ലങ്കി എന്നെന്ന് പറഞ്ഞ കഴിഞ്ഞാ അത് വല്യൊരു പ്രശനമായിട്ട് മാറും മീൻസ് നമ്മള് നമ്മള് തന്നെ സഫർ ചെയ്യണ്ട വരും എൻ്റെ യാത്ര ഞാനിതേപോലെന്നെ തന്നെയാണ് ബൈക്കൻ്റെ മെക്കാനിക് പണികളൊക്കെ ചെയ്യുന്നേ അപ്പം അങ്ങനെയ അങ്ങനെയൊക്കെയൊള്ള കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാണ് ചെയ്ത് ചെയ്യുന്നത് ബൈകിനിതുവരെ അങ്ങനെ ഒരു പ്രാശം പോയി കഴിഞ്ഞപ്പ ഇതേപലെ ചെറിയൊരു റൈഡന് ഇതേപോലെ എന്താണ് ഒരു പ്രഷറിൻ്റെ ഇതേപോലെ ട ഈ ടയറൊക്കെ പഞ്ചറായിരുന്നു അപ്പ ഞാൻ തന്നെ അത് സോൾവ് ചെയ്തു അത് ഞാൻ തന്നെ ചെയ്തും അപ്പം അങ്ങനെ ചെറിയ രീതിയിലുള്ള പണികള് നമ്മൾക്ക് അങ്ങനെ ചെറിയ പണികളെ ഉണ്ടാവത്തുള്ളൂ അതാണ് ഈ ബൈക്കിൻ്റെ ഒരു പേ റെ പറയുന്നത് വല്യ യാത്ര പോകുമ്പോ മനസ്സിലായോ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ സംഭവിക്കത്തുള്ളു നമക്ക് ദൈവം അനുഗ്രഹിച്ച്